ഈ ബൈക്ക് ബൈക്ക് അപകടങ്ങളാണ് നമ്മുടെ ഈയിടെയായിട്ട് ഈയിടെയല്ല ഒരു നമ്മളൊരു പത്ത് ഇരുപത് വർഷം തൊട്ട് നോക്കുകയാണെങ്കിൽ ബൈക്ക് അപകടമാണ് നമ്മുടെ ഇവിടെ പ്രധാനമായ അപകടങ്ങൾ വരുത്തുന്നതും മറ്റുള്ളവർക്ക് അപകടം വരുത്തക്ക രീതിയിലുള്ള ബൈക്ക് ഓടിലൊക്കെയാണ് ഈ കാലത്തെ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത് ചെറുപ്പക്കാർ ഈ കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരും ലൈസൻസ് കിട്ടാത്ത പിള്ളേർ വരെ ബൈക്ക് ഓടിച്ച് കൊണ്ടങ്ങ് പോകും ഈ ഇവർ ഈ ടീ വിയിലും മൊബൈലിലൊക്കെ കാണുന്ന മാതിരി അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ആകർഷിപ്പിക്കുവാൻ വേണ്ടിയൊക്കെ അവർ അപകടമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നത് പക്ഷേ അവരതൊന്നും അറിയുന്നില്ല അതിൻ്റെ അപകടാവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല അവരാ കുറച്ച് സമയത്തിന് അവരുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് പക്ഷേ അവർക്കു വേണ്ടി കാത്തിരിക്കുന്ന വീട്ടുകാർക്ക് ഈ ഇങ്ങേരെ തിരിച്ചെത്തണമെന്നുള്ള പ്രാർത്ഥനയൊക്കെ കാണുമല്ലോ അപ്പം ഇതു പോലെ അപകടം ഉള്ള യാത്രായൊന്നും യാത്രയാണ് നമ്മളിവിടെ കാണുന്നത് ബൈക്ക് ഓടിച്ച് തുടങ്ങുന്നവർക്ക് സംഭവിക്കാറുള്ള ഏറ്റവും സാധാരണ ചില തെറ്റുകൾ എന്തൊക്കെയാണെന്നു വെച്ചാൽ എന്താ നമ്മൾ പ്രധാനമായും സൈക്കിൾ ബാലൻസ് ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മളീ ഈ ബൈക്ക് ഓടിച്ച് തുടങ്ങാവുളളൂ കാരണം സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ബൈക്കിൽ തൊട്ടാൽ ബൈക്ക് പഠിക്കാൻ തുടങ്ങിയ അത് അത്ര നല്ലതല്ല അപകടങ്ങൾക്ക് വരുത്താൻ ചാൻസുണ്ട് സൈക്കിൾ ബാലൻസ് പിന്നെ കൃത്യമായ ബ്രേക്കിങ് ടെക്നോളജി ഒക്കെ ഉപയോഗിക്കാനും ഗിയർ ഷിഫ്റ്റിങ്ങും ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം അതാണ് ബൈക്കുകാരുടെ ഇത് തുടക്കം നമ്മൾ മേ ആദ്യമേ നമ്മൾ മെയിൻ റോട്ടിൽ എന്നും പോകില്ല നമ്മളൊരു വൺ വേ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴികൾ നമ്മുടെ വീട്ടിലോട്ടു വന്ന വഴി അങ്ങനത്തെ വഴികളിലൊക്കെ ആദ്യം ഓടിച്ച് പഠിക്കുക എന്നിട്ട് നമ്മൾ ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പയ്യെ സ്പീഡ് കുറച്ച് പയ്യെ ഓടിക്കുക അങ്ങനെയാണ് തുടക്കം ചെയ്യേണ്ടത് ഹെൽമറ്റൊക്കെ ഉപയോഗിക്കാൻ മറക്കാതെ ഇടുക അതൊക്കെയാണ് പിന്നെ ഓയിലിടാൻ മറക്കല്ലേ പിന്നെന്താ പെട്രോൾ ഡീസൽ അടിക്കേണ്ട അത്ത് പെട്രോളും പെട്രോളടിക്കത്ത് പിന്നെ ബൈക്കിന് പെട്രോളാണ് പെട്രോൾ ഒഴിക്കുക ഇപ്പം ചെയ്യാൻ അറിയാത്തൊരക്കാണ് ചിലപ്പോൾ ഡീസലൊക്കെ ഒഴിച്ച് വെച്ചെങ്കിൽ അത് പിന്നെ അത് പ്രശ്നമാകാറുണ്ട് പിന്നീട് വരുന്ന ടയർ ടയർ തേഞ്ഞ് തീരും ഒരു പരിധി കഴിയുമ്പോഴത്തേനും ടയർ തേഞ്ഞ് തീരും അപ്പം അത് നമ്മൾ മാറ്റിയിടണം മാറ്റിയിടാൻ മറക്കല്ലേ കാരണം ടയറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ വണ്ടിയുടെ കൺട്രോളൊക്കെ അത്യാവശ്യം പിന്നെ നല്ലൊരു വണ്ടി നമ്മൾ നോക്കിയും കണ്ടും എടുക്കുക പിന്നെ എന്താ നിയമങ്ങൾ നമ്മൾ പാലിക്കുക നമ്മൾ ഒരു ഒരു സ്പീഡ് നമ്മൾ ഇപ്പം ഈ ഏരിയ ഇവിടുത്തെ പ്രദേശമൊക്കെയാണ് മലയോര മേഖലയാണ് വളവും നല്ല വളവും കയറ്റ ഇറക്കമൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുമ്പം ആ ഒരു സ്പീഡ് നമ്മൾ നാട്ടിൻ പുറത്ത് കാണുന്ന ആ സ്പീഡിലൊക്കെ ഇവിടെ ഓടിച്ചെങ്കിൽ വല്ല കുന്നിൻ്റെ കൊക്കയിലൊക്കെ ഇരിക്കും അതാണ് പ്രശ്നം വരുന്നത് അപ്പം നേരെ ചൊവ്വേനെ ഓടിച്ചാൽ നമുക്ക് കൊള്ളാം അത്രയുളളൂ പിന്നെ സിഗ്നൽസ് പാലിക്കുക പിന്നെ ലെഫ്റ്റിൽ കൂടി ഈ ബൈക്കുകാർ പിന്നെ ഞാൻ കാണുന്നത് ലെഫ്റ്റിലൂടെ ഓവർ ടേക്ക് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അപ്പം അതൊഴിവാക്കുക കാരണം കാറിലിരിക്കുന്നവർക്കും ബസ്സിലിരിക്കുന്നവർക്കും ലെഫ്റ്റിൽ കൂടി ഓവർ ടേക്ക് അവർ അതു പോലെ പ്രതീക്ഷിക്കുക അല്ലല്ലോ ആ ഒരു രീതിയിൽ നോക്കുക റൈറ്റിൽ കൂടി ആണ് ഓവർ ടേക്ക് ചെയ്യേണ്ടത് അതൊക്കെയുള്ളു